നിങ്ങളുടെ ഒരു ദിവസത്തെ ഡെയിലി കാര്യങ്ങളൊക്കെയൊന്ന് പറയാൻ പറ്റുമോ രാവിലെ എപ്പോഴാണ് എണീക്കുക അങ്ങനെ അതുതൊട്ട് എങ്ങനെയാണ് എവിടെ എത്ര സമയം എത്രമണിക്കാണ് കിടക്കുക അതിൻ്റെ ഇടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുമൊന്ന് പറയുക രാവിലെ എന്നു പറയുമ്പോൾ രാവിലെ ഒരു ആറുമണി അഞ്ച് അഞ്ചരയ്ക്ക് എണീക്കും രാത്രി നേരത്തേ കിടക്കുന്നതുകൊണ്ട് രാവിലെ നേരത്തേ എണീക്കും അതുകൊണ്ട് ഒരഞ്ചരയ്ക്ക് എണീച്ച് ഒന്ന് നിസ്ക്കരിച്ചിട്ട് പിന്നെ അത് ഈ നോട്ട് വല്ലതും എഴുതാനുണ്ടെങ്കിൽ അതെഴുതി പിന്നെ ചിലപ്പോൾ മഴയൊന്നുമില്ലെങ്കിൽ നടക്കാൻ പോകും പിന്നെ വന്ന് കുളിച്ച് റെഡിയായി ഡ്രെസ്സൊക്കെ മാറ്റി പിന്നെ ഭക്ഷണം കഴിച്ച് ഭക്ഷണങ്ങൾ ബാഗിലെടുത്ത് വെച്ച് പിന്നെ കോളേജിലേക്ക് വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്ററുണ്ട് അപ്പോൾ അവിടെ നിന്ന് രണ്ട് ബസ്സ് കയറണം എൻ്റെ വീട് മലമ്പുഴയിലാണ് അപ്പോൾ മലമ്പുഴയിൽ നിന്ന് ഏഴരയ്ക്കാണ് ബസ്സ് അപ്പോൾ അതിൽ കയറി അവിടെ പാലക്കാട് വന്നെത്തണം അപ്പോൾ ഏഴരയ്ക്ക് കയറിയാൽ അവിടെയൊരു എട്ടുമണി ആകുമ്പോഴേക്കും എത്തും എട്ടുമണിക്ക് പിന്നെ അവിടെ നിന്ന് എട്ടുമണിക്ക് പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂർ ബസ്സ് ഷൊർണ്ണൂർ ബസ്സോ അങ്ങനെ ഏതേലും കയറിയാൽ മങ്കര കോളേജിൽ വന്നിറങ്ങാം ആ കോളേജിൽ ഇറങ്ങി അവടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് കോളേജിലോട്ടെത്തി ഒമ്പതുമണിക്ക് ക്ലാസ്സ് തുടങ്ങുന്നതായിരിക്കും ക്ലാസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്കിങ്ങ് ടൈം വന്നിട്ട് ഒമ്പതുമണി മുതൽ നാലേകാല് വരെയാണ് എല്ലാ പിരീഡും ഓരോ മണിക്കൂർ വെച്ച് ഇപ്പോൾ ഒമ്പതുമണി മുതൽ പത്തുമണിവരെ ഒരു പിരീഡ് പിന്നെ പത്ത് മണിതൊട്ട് പതിനൊന്ന് മണിവരെ വേറൊരു പിരീഡ് പിന്നെ പതിനഞ്ചു മിനിറ്റ് ബ്രേക്ക് ആ സമയത്ത് ക്യാന്റീനിലോട്ട് പോകുന്നവർക്ക് പോകാം പിന്നെ വെള്ളം അങ്ങനെ നമുക്കൊരു ബ്രേക്ക് പിന്നെ പതിനൊന്നേകാൽ മുതൽ പന്ത്രണ്ടേകാൽ വരെ വേറൊരു പിരീഡുണ്ടാവും അതിനു ശേഷം പന്ത്രണ്ടേകാൽ മുതൽ ഒരു മണിവരെ ബ്രേക്ക് ലഞ്ച് ബ്രേക്കായിരിക്കും ഭക്ഷണം കഴിക്കാം പിന്നെ ഒരു മണിക്ക് അടുത്ത പിരീഡ് തുടങ്ങും ഒരുമണി മുതൽ രണ്ടുമണി വരെ പിന്നെ രണ്ട് ടു മൂന്ന് പിന്നെ മൂന്നുമണി മുതൽ മൂന്നേകാലു വരെ ഒരു ചെറിയ ബ്രേക്ക് ഷോർട്ട് ബ്രേക്ക് കേട്ടോ പിന്നെ അതിനു ശേഷം മൂന്നേകാലു മുതൽ നാലേകാൽ വരെ അടുത്ത പിരീഡ് അതിനുശേഷം ക്ലാസ്സ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്പോർട്സസൊക്കെ ഉണ്ടാകും അതിന് നിൽക്കുന്നവർക്ക് അതിൽ നിൽക്കാം പ്രാക്റ്റീസ് അങ്ങനെയൊക്കെ ഉണ്ടാവും അതിനുശേഷം നമുക്ക് വീട്ടിലോട്ട് കോളേജിൽ നിന്ന് നാലേകാലിന് ക്ലാസ്സ് വിട്ടാൽ നമ്മൾ അവിടെ നാലര നാലരയ്ക്ക് ബസ് സ്റ്റോപ്പിലെത്തി അവടെ നിന്ന് പിന്നെ ബസ് കയറി വീടെത്തുമ്പോൾ ഒരു ആറുമണി ആറരയൊക്കെയാവും പിന്നെ വീട്ടീൽപ്പോയി ഒന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഒന്ന് കുളിച്ച് പിന്നെ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി അങ്ങനെയിരുന്ന് പിന്നെ വല്ലതും എഴുതാനുണ്ടെങ്കിൽ എഴുതുകയും പഠിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ രാത്രി ഭക്ഷണം കഴിച്ച് ഒരു ഒമ്പത് ഒമ്പതരയൊക്കെ ആകുമ്പോൾ നമ്മൾ ഞാൻ കിടക്കും നേരത്തെ കിടന്ന് ശീലിച്ചതുകൊണ്ട് അങ്ങനെ നേരത്തേ കിടന്ന് പിന്നെ രാവിലെ രാവിലെ എണീക്കും നേരത്തേ എണീക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി ഇങ്ങനെത്തന്നെയാണ് നടക്കുന്നത് ചില സമയ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വൈകി കിടക്കാൻ എണീക്കുമ്പോൾ ലെയ്റ്റാകും അപ്പോൾ സാറ്റർഡേ ഹോളിഡേ സമയത്തിലാണെങ്കിൽ ഈ പ്ലാനൊക്കെ മാറും പിന്നെ അങ്ങനെ മിക്ക ദിവസങ്ങളിലും ഇതു തന്നെയായിരിക്കും എൻ്റെ ഡെയിലി റുട്ടീൻ